സ്ഥിരമായൊരു വായന ശീലം എനിക്കില്ല പുസ്തകങ്ങൾ പ്രത്യേകിച്ചും പുസ്തകങ്ങൾ പത്രവാർത്ത പത്രവാർത്തകൾ വായിക്കും പത്രങ്ങൾ വായിക്കുകേം ചെയ്യുന്നെങ്കിൽ പോലും സ്ഥിരമായി ഞാൻ ഇങ്ങനുള്ള പുസ്തകങ്ങൾ അധികം ഇപ്പം വായിക്കാൻ വായിക്കുന്നില്ല പുസ്തകം ഞാൻ വായിച്ചിരുന്നു അപ്പം ചെറിയൊരു ശേഖരമൊക്കെ എനിക്കുണ്ട് പക്ഷേ എങ്കിലും ഇപ്പം അത്യാവശ്യം ചെറുപ്പത്തിലെ ഞാൻ കൂടുതൽ ബുക്കുകൾ അങ്ങനെ വായിക്കത്തില്ല പിന്നെ പള്ളിയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് എൻ്റെ ഔദ്യോഗിക ജീവിതമെല്ലാം കഴിഞ്ഞ ശേഷം ഇപ്പം ഞാൻ പള്ളിയുമായിട്ടൊക്കെ ചേർന്ന് പള്ളീടെ കാര്യങ്ങളിൽ സർവീസ് ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഇരിക്കവെയാണ് ഞാനിവിടെ ചർച്ചിൻ്റെ ഒരു യൂണിറ്റ് സെക്രട്ടറിയായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പം ഇങ്ങനെ ഇരിക്കുന്ന സന്ദർഭങ്ങളൊക്കെ പഴയവർ ഇവിടെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനമായിരുന്നു ജാസെന്ന് പറയുന്നത് കൂടുതൽ അംഗങ്ങളും ഒരു സമ്പാദ്യം നിക്ഷേപങ്ങളിലെ അംഗത്വവും അതേപോലെ തന്നെ പള്ളികളിലെ സഹകരണമൊക്കെ ഉണ്ടായിരുന്നൊരു പ്രസ്ഥാനമായിരുന്നു പുത്തൻപള്ളിയിലെ ജാസ് യൂണിറ്റ് അത് ഇട കാലഘട്ടത്തിൽ നിർജീവമായി പ്രത്യേകിച്ച് കൊറോണ രോഗങ്ങളെല്ലാം വന്നു കഴിഞ്ഞപ്പം അത് തീരെ നിശ്ചലമായി പോയി അതിനെ നിച്ചേധിപ്പിക്കാനായിട്ട് ഞാൻ പുതിയൊരു കമ്മിറ്റിയൊക്കെ എടുത്തപ്പോൾ എനിക്കതിനെ എന്നെ മുഖ്യ സ്ഥാനത്ത് നിർത്തി അന്നേരം വികാരിയച്ചൻ എ പി ചെമ്മാകരിയച്ചനാണ് അതിന് മുൻകൈ എടുത്ത് എന്നെ അതിൻ്റെ സെക്രട്ടറിയാക്കുന്നത് സെക്രട്ടറിയായിട്ട് ഞാനിവിടെ അന്നിവിടുത്തെ പല ബുള്ളറ്റിനുകളും കണ്ട് ഇവിടുത്തെ ഞാൻ ജാസിൻ്റെ ഉത്ഭവവും ജാസിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ വായിച്ചു അപ്പോൾ അങ്ങനെ ഇരുന്ന് വെറുതെയിരിക്കുന്ന സമയത്തൊക്കെ ഇപ്പം വായിക്കുന്ന ചില പുസ്തകങ്ങൾ എന്ന് പറയാൻ ഈ ബുള്ളറ്റ്കൾ മാത്രമേയുള്ളു അപ്പം പാരിഷ് ബുള്ളറ്റിൻ വായിക്കാറുണ്ട് നോക്കാറുണ്ട് അതുപോലെ തന്നെ ഈ ജാസിൻ്റെ ബുള്ളറ്റ്കൾ നോക്കാറുണ്ട് എല്ലാ വർഷവും ഇങ്ങനെ ജാസിൻ്റെതായി ഇറങ്ങുന്ന അവരുടെ മാസികകൾ അതുപോലെ ബുള്ളറ്റിനുകൾ ഒക്കെ ഞാൻ വായിക്കുന്നത് ജാസെന്ന് പറയുന്ന പ്രസ്ഥാനം തീരെ ചെറിയൊരു പ്രസ്ഥാനമല്ല ജാസ്സ് വളരെ വളരെ ഉത്തരവാദിത്വത്തോട് കൂടി ഈ പൊതുസമൂഹത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നൊരു പ്രസ്ഥാനമാണ് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ഏരിയ ഉള്ള കേരളത്തിൽ ചങ്ങനാശ്ശേരിയിൽ രൂപതേടെ കീഴിലുള്ള ഒരു പ്രസ്ഥാനമാണ് ചങ്ങനാശ്ശേരിയിലെ പിതാക്കന്മാരും അതിന് നേതൃത്വം വൈദികരും ചേർന്ന് ചേർന്ന ഒരു കമ്മറ്റിയാണ് ഇതിനെ നയിക്കുന്നത് അപ്പം ഞാനതിലൊരു ഭാഗമാക്കാൻ ഭാഗമാകാൻ ആഗ്രഹിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ജാസിൻ്റെ ബുള്ളറ്റുകളിലൊക്കെ കാണുന്ന പ്രത്യേക ഭാഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ യൂണിറ്റുകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അവിടെ നടത്തുന്ന ചാരിറ്റി പ്രവർത്തനങ്ങളെക്കുറിച്ചും എല്ലാവർഷവും ലോക പരിസ്ഥിതി ദിനവും ലോക ലഹരി വിരുദ്ധ ദിനവുമൊക്കെ ആചരിക്കുമ്പോൾ എല്ലാ യൂണിറ്റുകളും സജീവം പങ്കെടുക്കുന്നത്

സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ പ്രവർത്തിക്കുന്നതിൻ്റെ അറിയാൻ കഴിയുന്നുണ്ട് പ്രവർത്തിക്കുന്ന സംഘടനകളെ പള്ളികളെ രൂപതയുടെ കീഴിലുള്ള മറ്റു പള്ളികളെ അറിയാനും സംഗമങ്ങൾ കൂടി സ്വാഭാവികമായിട്ടും പരിചയപ്പെടാനൊക്കെ കഴിയുന്നത് ഈ വായനയിൽ കൂടി ആകുമ്പോൾ ഒന്നും കൂടി ദൃഢമാക്കുന്നുണ്ട് അങ്ങനെ കൂടുതൽ വായിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഞാനിപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് വായിക്കുന്നത് എന്ന് ഞാൻ അറിയിക്കുന്നു നിർത്തുന്നു